ചെടികൾ വളർത്താൻ സാധാരണയായി എക്കൽ മണ്ണ് കറുത്ത മണ്ണ് തുടങ്ങിയവയാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത് കാരണം എൻ്റെ വീട്ടിനടുത്തുകൂടി ഒഴുകുന്ന ചെറിയൊരു അരുവിയുടെ കരയിൽ നിന്നാണ് ഞാൻ സാധാരണയായി കൃഷിക്കാവശ്യമായ അല്ലെങ്കിൽ ചെടികൾ വളർത്താനാവശ്യമായുള്ള മണൽ അഥവാ മണ്ണ് ശേഖരിക്കുന്നത് ഈ മണ്ണിൽ ആവശ്യത്തിലധികം ധാതുക്കൾ ലവണങ്ങൾ അതുപോലെ തന്നെ ഈ നദി അഥവാ അരുവി വ വഹിച്ചുകൊണ്ട് വരുന്ന മിനറൽസ് എന്നിവ അടങ്ങിയിരിക്കുന്നു എന്ന ബോധ്യമെനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണായിരിക്കണം എൻ്റെ ചെടികൾക്ക് ഇടേണ്ടത് എന്നുള്ള ബോധ്യമേനിക്കുണ്ടായത് കൊണ്ട് തന്നെ ഈ ഒരു മണ്ണാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വളം വളം ജൈവ വളം ആണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ശുദ്ധമായ ചാണകം അതുപോലെ തന്നെ ഇതര വേസ്റ്റ് ഉൽപ്പന്നങ്ങൾ ഫുഡ്വേസ്റ്റൊഴികെ ബാക്കി പച്ചക്കറികളുടെ അവശിഷ്ട്ടങ്ങൾ മുട്ടത്തോട് തുടങ്ങിയുള്ള വേസ്റ്റുകളെല്ലാം ഞാൻ ചെടിക്കായി പ്രയോജനപ്പെടുത്താറുണ്ട് ആവശ്യമെങ്കിൽ വളം വാങ്ങിക്കാറുമുണ്ട് അതുപോലെ തന്നെ സ്ത്രീ ഒരു ചെടിയുടെ ഏറ്റവും സ്വാഭാവികമായ വളർച്ചയ്ക്ക് ജൈവ വളമാണ് ഏറ്റവും ഉത്തമവും ഗുണകരവും അതുകൊണ്ട് തന്നെ ജൈവ വളത്തിലൂന്നിയ ഒരു കൾട്ടിവേഷൻ ആണ് ഞാൻ കൂടുതലായും ഫോളോപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ചെടികളുടെ യീൽഡിങ് കുറച്ച് അധികം മറ്റുള്ളവരെ അപേക്ഷിച്ച് അധികമാണ് എന്നുള്ളൊരു ബോധ്യവും തിരിച്ചറിവും സന്തോഷവും എനിക്കുണ്ട് ടാങ്ക് യു